ആ അതെ അതെ പറഞ്ഞോളൂ

ആ ആ രണ്ട് മാസം ആയതേ ഉള്ളൂ അതെയോ ആ നിങ്ങൾക്ക് എന്താണ് ജോലി ജോലി എന്താണ് ആ ഓ ആ കൂടുതൽ ആയിട്ട് നിൽക്കുന്ന നിൽക്കാറുണ്ടോ ആ ആ ചിലപ്പോൾ എല്ല് തേയ്മാനം ആയിരിക്കാനാണ് സാധ്യത എന്തായാലും നോക്കാതെ എനിക്ക് ട്രീറ്റ് ചെയ്യാതൊന്നും പറയാൻ പറ്റൂല ഇപ്പോൾ എന്ത് ആണ് അപ്പോൾ നാളെ ഞാൻ ഇപ്പോൾ ക്ലിനിക്കിൽ ഉണ്ട് നാളെ മൂന്ന് മണിക്ക് അപ്പോൾ നിങ്ങൾ ആ അവിടെ കാസഗോഡ് തന്നെ ആണ് ആ ഒരു മൂന്നര ആവുമ്പോൾ വന്നോളൂ അവിടെ ടോക്കൺ ടോക്കൺ കൊടുക്കുന്ന ലേഡി ഉണ്ട് അവരോട് ഒന്ന് ചോദിച്ച് അന്വേഷിച്ചിട്ട് വന്നോളൂ മൂന്ന് മണിക്ക് മൂന്ന് മൂന്നര ആവുമ്പോൾ വന്നോളൂ ആ അപ്പോൾ ഞാൻ ട്രീറ്റ് എഴുതി തരാം എന്താണ് എന്താണ് സംഭവം വീണിട്ട് ഒന്നുമില്ലല്ലോ ആ ഈ നമ്പറിലോട്ട് വിളിച്ച് വന്നാൽ മതി വീണിട്ടൊന്നുമില്ലല്ലോ

ആ ആ ആ ആ ആ ആ

ആ വയസ്സ് വയസ്സ് എത്രയാണ് ആ ചില സമയം വയസ്സിൻ്റെ എല്ല് തേയ്മാനം തേയ്മാനം എല്ലാം വരുന്ന ടൈമല്ലേ അപ്പോൾ ചിലപ്പോൾ ആ കാൽസ്യത്തിൻ്റെ കുറവാണ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഒന്ന് നാളെ ഒന്ന് കണ്ടിട്ട് ഞാൻ ഒന്ന് ട്രീറ്റ് ചെയ്ത് ചിലപ്പോൾ എക്സ്റേ അങ്ങനെ എന്തെങ്കിലും എടുക്കാൻ ഉണ്ടെങ്കിൽ ഇന്ന് തരാം എഴുതി പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നിട്ട് നോക്കാം എല്ല് ആ ചില സമയം അത് ഇങ്ങനെ പറഞ്ഞിട്ട് ടാബ് എടുക്കുന്നതിനെ കാട്ടിയും ഒന്ന് നോക്കാം നോക്കിയിട്ട് വിളിച്ച് ആ വന്നെങ്കിലും ഓക്കെ അപ്പോൾ നാളെ വന്നോളൂ നാളെ വന്നോളൂ വിളിച്ചിട്ട് വന്നാൽ മതി ഓക്കെ ഓക്കെ ശരി അപ്പോൾ